ഞാനൊരു റിസോർട്ടിലായിരുന്നു പണിയെടുത്തോണ്ടിരുന്നെ അവിടെ നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാം അതിപ്പം കൊറച്ചു കാലായിട്ട് അത് പൂട്ടിപ്പോയി പിന്നെ ഞാനൊരു സ്കൂളില് പോയിപ്പെട്ട് സ്കൂളില് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെവരെ കറങ്ങിത്തിരിഞ്ഞാൽ വൈകുന്നേരം അഞ്ചുമണി വരെ എടുത്താലും പണി തീരൂല്ല പിന്നെ അതെല്ലാം കഴിഞ്ഞു ഞാനത് ഒഴിവാക്കി പിന്നെ അതൊരു വെല്ലുവിളിയായി എനക്ക് തോന്നി അത് കഴിഞ്ഞു ഞാനിപ്പൊരു പിന്നെ ഒരു കാന്റീൻ തുടങ്ങിയിട്ടുണ്ട് കാന്റീനിലും പണിണ്ട് രാവിലെ ഞങ്ങള് ആറു മണിക്ക് പോയാല് വൈകുന്നേരം നാല് നാലര വരെ പണിണ്ടാകും പക്ഷെ നല്ല നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാം നമ്മളെ ആരും പഠിപ്പിക്കൂല്ല എനിക്ക് പിന്നെ അടിമ പണിയായിട്ട് ആരും പറഞ്ഞു പഠിപ്പി പഠിപ്പിക്കുന്ന പണിയൊന്നും എനക്കിഷ്ട്ടമല്ല നമ്മുടെ സ്വന്തയിഷ്ട്ടത്തിന് എടുക്കുന്ന പണിയാണ് എനക്കിഷ്ട്ടം അല്ലാണ്ട് ഒരാള് പഠിപ്പിച്ച് തരും ഞാനെടുക്കൂല്ല എനക്കത് തീരേ ഇഷ്ടമല്ല പിന്നെന്തെങ്കിലുവൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും അത് കൊണ്ട് ഞാന് എൻ്റെ ഇഷ്ടത്തിന് ഞങ്ങള് രണ്ട് മൂന്നു പേര് പെണ്ണുങ്ങളുണ്ട് മൂന്ന് മൂന്ന് പെണ്ണുങ്ങളുണ്ട് ഞങ്ങളും മൂന്നാളും പോയി രണ്ട് ചേച്ചിമാരും ഞാനുമുണ്ട് മൂന്നാളും പോയി പണിയെടുത്ത് വൈന്നേരം നാലര അഞ്ചു മണിയാകുമ്പം വരും പിന്നതുപോലെ ഞാനീ കോളേജിലാണ് കോളേജിലാണ് പണിയെടുക്കുന്നത് അത് സുഖമായ പണിയാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട്